നെയ്ത്തും തുന്നലും ഒരു ഒരു കാലത്ത് ജീവിത മാർഗ്ഗമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും അപകടകരമായ രീതിയിലും പ്രതിസന്ധികളിലൂടേയും കടന്ന് പോകുന്ന രണ്ട് സംവിധാനങ്ങളാണ് നെയ്ത്തും തുന്നലും എന്നത് ആ നെയ്ത്തിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് സമയ നഷ്ടവും അതുപോലെത്തന്നെ അവശ്യവസ്തുക്കളുടെ ലഭ്യത കുറവും ഈ ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തുന്നൽ ഇന്നത്തെ കാലത്ത് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് പൈസ പൈസയും അതുപോലെ സമയവും ലാഭിക്കാൻ പറ്റും നെയ്ത്തിന് അതുപോല തന്നെ നൂലിൻ്റെ മറ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്ന സമയം വളരെ വലുതാണ് അതനുസരിച്ച് കിട്ടുന്ന വേതനം വളരെ ചെറുതാണ് അതുകൊണ്ട് ഈ മേഖലയിലേക്ക് ആളുകൾ അധികം കടന്ന് വരാറില്ല അതുപോലെ തന്നെ അലർജിയും മറ്റ് സംബന്ധമായ രോഗങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നെയ്ത്തലും തുന്നലിലൂടെയും നമ്മളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയില്ല ചെറിയൊരു വരുമാന മാർഗ്ഗം എന്നനിലയിൽ മാത്രമേ ഇതിനെ നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളു ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് രോഗികളായവർക്കും ഈ ജോലി ചെയ്യാൻ വളരെ പ്രയാസമാണ് നൂലിന് കളർ കൊടുക്കുക അതായത് ഡൈ ഇടുക തറിയിൽ ഒരു സെറ്റ് നൂൽ സെറ്റ് ചെയ്യുക അതാ ചെയ്ത് വൃത്തിയാക്കുക ഇവയുടെ വ്യാപാരവും അതുപോലെത്തന്നെ മറ്റ് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്ന് പോവുകയാണ് ആവശ്യമായിട്ടുള്ള ആവിശ്യക്കാരില്ലാത്തതും അതുപോലെത്തന്നെ വളരെ ഭംഗിയായി ഇത് ചെയ്യാൻ പറ്റാത്ത വിദഗ്ധമായി വിദഗ്ദ്ധത ഇല്ലാത്തതും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നെയ്ത്തും തുന്നലും നമ്മുടെ ജീവിതത്തെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് ഒരുപാട് സമയം നമ്മൾ ഇതിനായി ചിലവഴിക്കുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുന്നില്ല വളരെ നല്ല ഒരു കലയാണ് നെയ്ത്തും തുന്നലും എന്ന് പറയുന്നത് ഖാദീ ബോഡ് മുതലായ സർക്കാർ സ്ഥാപനങ്ങൾ ഈ വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ ബൃഹത് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഖാദി ബോഡ് ഇന്നും നഷ്ട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് യൂണിഫോം തുണിത്തരങ്ങൾ മറ്റുമൊക്കെ ഖാദിബോഡിൽ നിന്ന് വാങ്ങുകയും ആൾക്കാർ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ഈ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഖാദി പോലെ വളരെ നല്ല ഒരു വസ്ത്രം നമ്മൾക്ക് ധരിക്കാൻ കിട്ടുക എന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ കാലത്തെ പോളിസ്റ്റർ മറ്റ് തുണിത്തരങ്ങൾ എന്നിവയെ അപേക്ഷിച്ച് വളരെ സുഖകരമായ രീതിയിൽ ധരിക്കുന്നതിന് സഹായിക്കുന്ന വസ്ത്രങ്ങളാണിവ നെയ്ത്തും തുന്നലും വഴി ഇന്ന് നമ്മൾക്ക് വർദ്ധിച്ചു വരുന്ന വിവിധ സാഹചര്യങ്ങളെ നേരിടുക എന്നത് വളരെ പ്രധാന വളരെ പ്രയാസകരമായ കാര്യമാണ് അതിനാൽ നെയ്ത്തിലൂടെയും തുന്നലിലൂടെയും ഒന്നും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള വരുമാന മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കുകയില്ല അതിന് സമാന്തരമായി വേറേ രീതിയിലുള്ള വല്ല തൊഴിലും കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുതന്നെയായാലും ഈ രണ്ട് തൊഴിലിലൂടെ നമ്മൾക്കൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ മേഖല യന്ത്രവൽക്കരിക്കുക യന്ത്രവൽക്കരണത്തിലൂടെ ഈ മേഖല ഒത്തിരി കഷ്ടതകളിലൂടെയാണ് കടന്ന് പോകുന്നത് കടന്ന് പോകുന്നത് പരസ്യത്തിൻ്റെയും മറ്റും കുറവ് അസംസ്കൃത അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത കുറവൊക്കെ ഇതിനെ ഏറെ ഹാനികരമായി ബാധിച്ചിട്ടുണ്ട് ശരീര വേദന അനുഭവപ്പെടുക എന്ന്പറഞ്ഞാൽ കൈയും കാലും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ തൊഴിൽ ചെയ്യാൻ പറ്റുന്നത് കൈയുടെ ഷോൾഡർ വേദന അതുപോലെ തന്നെ കാലിൻ്റെ കാലിന് നീര് കെട്ടുക നടുവിന് ബുദ്ധിമുട്ട് ഉണ്ടാകാം തലവേദന മുതലായവ ഇത് സ്ഥിരമായി ചെയ്യുന്ന ആളുകളിൽ കണ്ട് വരുന്നു അതുപോലതന്നെ ആൾക്കാർക്ക് മറ്റേ ഈ തൊഴിൽ ചെയ്യുന്നതിലൂടെ നടുവിനും അതുപോല തന്നെ ശാരീരിക വേദനകൾക്കുമൊക്കെ കാരണമാകുന്നു